ഹലോ പി എം കെ വൈ ഓഫീസല്ലേ സാർ എനിക്ക് നിങ്ങളുടെ ഒരു കോഴ്സിനെക്കുറിച്ച് ഞാനറിയ അറിയാനിടയായി അപ്പം ആ കോഴ്സിനെക്കുറിച്ചൊന്ന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടായിരുന്നു ഈ കോഴ്സ് പഠിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കോഴ്സ് എവിടെയാ ലഭ്യമാവുക എന്നുള്ളത് എന്ന് അറിയുന്നില്ല അതറിഞ്ഞാൽ എത്രയാണ് ഫീസ് എന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നും ഒക്കെ ഒന്ന് പറഞ്ഞുതന്നാൽ നല്ലതായിരുന്നു ഇത് എവിടൊക്കെ ലഭ്യമാവും എന്നും ഏതൊക്കെ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിലാണെന്നൊക്കെ ഒന്നറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ സ്വന്തമായ ഒരു തൊഴിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാനൊക്കെ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽനിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് വിളിക്കുന്നത് അപ്പം ഇത് എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ഇതെനിക്ക് ലഭ്യമാകും എവിടെയൊക്കെ ഇത് കിട്ടും എന്നൊക്കെയാണ് എനിക്കറിയേണ്ടത് ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതാ പുരോഗമനിയിൽ പുരോഗതിയിലെത്തിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുന്നു കേട്ടിട്ട് അപ്പോൾ അതിൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ സാറിൽനിന്ന് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ നല്ല ഉപകാരമായിരുന്നു അതിന് വേണ്ടുന്ന ഫോമുകളോ കാര്യങ്ങളോ എന്താ എവിടെ ലഭിക്കും എന്നും അതിന് വേണ്ടുന്ന ഫീസ് എത്രയാവും എന്നും അതിന് വേണ്ടുന്ന എന്തെല്ലാം രേഖകളാണ് ഞാൻ ഹാജരാക്കേണ്ടതെന്നും ഒക്കെ ഒന്ന് പറഞ്ഞുതന്നാൽ നല്ലതായിരുന്നു സാർ താങ്ക് യൂ